നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാ രണ്ട് മൂന്ന് ഡോക്ടർമാർ ഉണ്ടെങ്കിൽ അത്രയൊന്നും ഒത്തിരി നേരം കാത്തിരിക്കേണ്ട ഇതായിട്ട് വരില്ല പക്ഷെ അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി രോഗികൾ വരുമ്പോൾ അതിൻറ്റേതായൊരു വിഷമതകളുണ്ട് ഒത്തിരി നേരം കണ്ട് പെറുക്കി ഇറങ്ങി വരുമ്പോൾ നമുക്ക് അത്രയും സമയം നമ്മൾ അവിടെ വെയ്റ്റ് ചെയ്യുക ഇല്ല അപ്പോഴത്തേന് അതിൽനിന്ന് അസുഖങ്ങളക്കെ ആയിട്ട് വരുന്ന രോഗികളിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ മറ്റുള്ള രോഗിയിലേക്ക് പടരും പടരുകയും ചെയ്യും അതുകൊണ്ട് രണ്ട് ഒര് മൂന്ന് ഡോക്ടർ എങ്കിലും ഒരു ഹോസ്പിറ്റൽല് അവൈൽ ആണെങ്കിൽ ഒത്തിരി നന്നായിട്ടിരുന്നെ ക്ക്